ഇന്നത്തെ കാലഘട്ടത്ത് നോക്കിയാല് മലയാള ഭാഷ അന്യം നിന്ന് പോകുന്നതായിട്ടാണ് നമ്മള് കാണുന്നത് അതിൽ മലയാളഭാഷയ്ക്ക് പുറമേ ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദി ഭാഷയും ഒക്കെ നമുക്കിടയില് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാതെ നമുക്ക് ഒരു സ്ഥലങ്ങളിലും ജോലിക്കൊന്നും പോകാനേ സാധിക്കില്ല ഇപ്പം ഏതൊരു ജോലിക്ക് അല്ലെങ്കില് ഏതൊരു ഇന്റര്വ്യൂവിന് പോയാലും ഇംഗ്ലീഷ് എന്ന ഒരു ലാംഗ്വേജ് അറിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് അപ്പോള് തന്നെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടാണ് പോകുന്നത് എന്നാല് ഇന്ന് ചില ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഉണ്ട് അപ്പോൾ അവ ഇപ്പോൾ എല്ലാ എല്ലാ വീട്ടിലുള്ള ആള്ക്കാരെയും ഇപ്പോൾ കുട്ടികളെയും നമ്മള് ഇംഗ്ലീഷ് മീഡിയത്തില് വിടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇംഗ്ലീഷ് മീഡിയത്തില് കൊണ്ടുപോയി വിടുന്നത് അവര് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം അവര്ക്കുണ്ട് നല്ല ഒരു ജോലിയും നല്ല ഒരു സ്ഥലത്ത് പോയി പഠിക്കാന് ഇംഗ്ലീഷ് അറിയണം എന്നുള്ലൊരു ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ മനസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ആ ഒരു സാഹചര്യത്തില് മലയാളഭാഷയ്ക്ക് അല്ലെങ്കില് നമ്മുടെ സംസ്കാരത്തിനു അല്ലെങ്കില് മലയാളഭാഷ തന്നെയാണല്ലോ നമ്മുടെ സംസ്കാരം അതുകൊണ്ട് തന്നെ മലയാളഭാഷയെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ഒരുപാട് കാര്യങ്ങള് ചെയ്യാം ഏറ്റവും നല്ലത് എന്നത് നമ്മുടെ കുട്ടികളെ വീട്ടില് നിന്നും തന്നെ കുട്ടികളെ മലയാളഭാഷയുടെ പ്രാധാന്യം എന്താണെന്നും മലയാള ഭാഷയുടെ ഭാഷ നമ്മുടെ ഒരു സംസ്കാരമാണ് തെളിയിക്കുന്നതെന്നും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാം മലയാളഭാഷയ്ക്ക് മുന്തൂക്കം കൊടുക്കാം ഇന്ന് ചില കുടികള്ക്ക് മലയാളം എഴുതാന് പോലും അറിയില്ല ആ സാഹചര്യത്തില് കുട്ടികള്ക്ക് മലയാളം സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ ഒന്നും പറ്റാത്ത രീതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടില് നിന്നും നമുക്ക് കുട്ടികളെ മലയാളഭാഷ എഴുതാനും സംസാരിക്കാനും പഠിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ രണ്ടാമതാണ് എന്ന് അവര്ക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാം പിന്നെ സ്കൂളിലൂടൊക്കെ സ്കൂളുകളില് ഒക്കെ മലയാളഭാഷയ്ക്ക് പ്രധാന്യം കൂ കൂട്ടി കൊടുക്കാം ഇംഗ്ലീഷ് ഭാഷയല്ല മലയാളമാണ് മുന്തൂക്കം നൽകേണ്ടത് എന്നുള്ള ബോധം അവരില് ഉന് അവരില് അവരില് തന്നെ വളര്ത്തിയെടുക്കാം